ഉത്തര ഇന്ത്യയിൽ പ്രധാനമായിട്ടും ആഘോഷങ്ങളിൽ വ്യത്യാസമുണ്ട് ദക്ഷിണ ഇന്ത്യയിലും ഒരുപാട് വ്യത്യാസമുണ്ട് ആഘോഷങ്ങളായാലും ഭാഷകളായാലും ഭക്ഷണമായാലും വസ്ത്രമായാലും കാലാവസ്ഥ രാഷ്ട്രീയ സാക്ഷരത ഭൂപടന എന്നിവയിലൊക്കെ ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ട് എന്നുള്ളത് യഥാർത്ഥ്യം വാസ്തവമാണ് ഉത്തര ഇന്ത്യയിൽ പ്രധാനമായിട്ടും അവിടെ അവരുടേതായ ഭാഷ സംസാരിക്കപ്പെടുന്നത് ഹിന്ദി ആണ് കൂടുതലായിട്ട് എല്ലാ സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നത് അതിനെകാട്ടിലും അതിനെ അതുപോലെ തന്നെ അതേതായ സ്ഥലത്തിൻ്റെ പ്രാദേശികമായ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ വരുമ്പോൾ പൂർണ്ണമായിട്ടും പ്രത്യേകിച്ചു കേരളത്തെ സംബന്ധിച്ചു പറഞ്ഞാൽ കേരളത്തിൻ്റെ പ്രാദേശികമായ ഭാഷ മലയാളമാണ് മലയാളമാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് എങ്കിലും അതാതു ജില്ലകളുടെ അടിസ്ഥാനത്തിൽ ഭാഷകൾക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതുപോലെ ഭക്ഷണ ക്രമത്തിൻ്റെ കാര്യത്തിലായാലും വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഉച്ചസമയങ്ങളിലും രാവിലെ പ്രഭാതത്തിലെ കാപ്പിക്ക് ആയാലും ഉച്ച സമയത്തായാലും വൈകുന്നേരങ്ങളിലായാലും പൊതുവെ കേരളീയമായ ഭക്ഷണം നമ്മൾ ഉപയോഗിച്ചു വരുന്നു കൂടുതലായിട്ട് വെജിറ്റബിൾസും അതുപോലെ മീനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു വ്യത്യാസം വസ്ത്രത്തിലായാലുമുണ്ട് കേരളത്തിൻ്റെ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ കേരള സാംസ്കാരികതയോട് ചേർന്ന വസ്ത്രങ്ങളാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചു വരുന്നതായിട്ട് കാണുന്നത് സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളം തന്നെയാണ് സൗത്ത് ഇന്ത്യ തന്നെയാണ് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് വടക്കേ ഇന്ത്യ അതായത് നോർത്ത് ഇന്ത്യ അപേക്ഷിച്ചു സാക്ഷരത ഏറ്റവും കൂടുതൽ തന്നെയാണ് പ്രത്യേകം ഭൂഘടനയിലും വ്യത്യാസമുണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ചു പ്രതേകിച്ചു കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ ആകർഷണീയമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് നദികൾ പുഴകൾ മറ്റു ഒട്ടനവധി പിന്നെ കൃഷിമേഖലകൾ കാണാൻ വൈവിധ്യമാർന്ന ഭൂമേഖലകൾ വയനാട് പോലുള്ള ദേശങ്ങൾ ടൂറിസ്റ്റ് പ്ലെയ്സ് ആയിട്ട് അംഗീകരിക്കപ്പെട്ട സ്ഥലങ്ങൾ നിരവധിയാണ് അപ്പോൾ ഭൂഘടനയിൽ മറ്റുള്ള സ്ഥലത്തെ അപേക്ഷിച്ചു വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാട്കൾ ഇവിടെ ഉണ്ടെന്ന് ഉള്ളതാണ് വാസ്തവം